അത് ആയിരത്തഞ്ഞൂറ് ഒക്കെയാവും എനിക്ക് എനിക്ക് ആയിരത്തഞ്ഞൂറ് കിട്ടിയെങ്കിലേ ഞാൻ പോവുള്ളൂ ആയിരം ആക്കിയാൽ നമുക്ക് മുതലാവണ്ടേ ദൂരം പോവേണ്ടതല്ലേ അഞ്ഞൂറ് രൂപ ഞമ്മളോട് ചോദിക്കാതല്ലേ അവർ പറയാ അപ്പം നമുക്കെങ്ങനറിയാം അഞ്ഞൂറ് രൂപ പിന്നെ കുറഞ്ഞാൽ നമുക്ക് അത്രയും ദൂരം പോകണം വണ്ടിക്ക് എണ്ണ അടിക്കണം അങ്ങനെയുള്ള എല്ലാ പ്രശ്നം പിന്നെ നമുക്ക് ചിലവും വേണ്ടേ ആ അഞ്ഞൂറ് രൂപ കൂടുതൽ കൂടുതൽ പറയാനൊന്നൂല്ല്യ ഏ അഞ്ഞൂറ് രൂപ കൂടുതൽ പറയാനൊന്നൂല്ല എണ്ണയ്ക്ക് പൈസ പെട്രോളിന് ഡീസൽനക്കെ വില കൂടുന്നത് നിങ്ങളറീണതല്ലെ ആയിരം രൂപ പോരല്ലോ പിന്നെ നമ്മൾ ഡൈവലായിട്ട് പോവുന്ന ഞമ്മക്കൊരൂലി വേണ്ടേ അപ്പെങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആയിരത്തഞ്ഞൂറ് രൂപ തന്നാൽ ഞാൻ കൊണ്ട് പോകാം എനിക്കും ആയിരം ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ ചാർജുണ്ട് ആര് പറഞ്ഞൂന്നറീല്ലല്ലോ ഞങ്ങൾക്ക് ആയിരം രൂപക്കാര് കൊണ്ട് പോന്നോ പറഞ്ഞോ അവരെ വിളിച്ചിട്ട് പോക്കോളു ഓക്കെ എന്നാൽ